എനിക്ക് ബൈക്ക് ഓടിക്കും ബൈക്ക് സ്റ്റണ്ടിങ്ങ് ചെയ്യാനുള്ള കഴിവുണ്ട് ചെറുപ്പം മുതലേ സൈക്കിൾ ഒക്കെ സ്റ്റണ്ട് ചെയ്യുമായിരുന്നു ഇപ്പോഴും ബൈക്ക് സ്റ്റണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷെ സ്വന്തമായിട്ടൊരു ബൈക്ക് ഇല്ല പിന്നെ അതേപോലെതന്നെ ബൈക്ക് ഫ്രണ്ട് പൊക്കി ഓടിക്കലും എല്ലാം ഉണ്ട് സ്റ്റണ്ട് ചെയ്യും നല്ല പോകും നല്ല കൺട്രോൾ ഒക്കെ ഉണ്ട് ബൈക്കിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബൈക്ക് ഡ്രൈവിംഗ് ഒക്കെ ഓടിക്കാനാണ് ബൈക്ക് ഒക്കെ ഓടിക്കാൻ പിന്നെ അതേപോലെ ഡ്രോയിങ്ങ് വരച്ച് ഇതായിട്ട് അച്ഛനും അമ്മയും കണ്ടിട്ട് അഞ്ചാം ക്ലാസു മുതൽ എന്നെ ഡ്രോയിങ്ങ് വരയ്ക്കാൻ വിട്ടിരുന്നു അങ്ങനെയും കുറച്ചു പഠിച്ചു വികസിച്ചു പിന്നെ ബൈക്ക് നല്ല സ്റ്റണ്ട് ചെയ്യും പിന്നെ പക്ഷെ സ്വന്തമായിട്ട് ബൈക്കില്ല പിന്നെ ചെറുപ്പം മുതലേ സൈക്കിളിൽ സ്റ്റണ്ട് ചെയ്ത് പഠിച്ചതുകൊണ്ട് വലുതാകുമ്പോൾ ബൈക്കിൽനിന്ന് സ്റ്റണ്ട് ചെയ്യാൻ പറ്റും ഒരു തവണ ബൈക്കിൽനിന്ന് സ്റ്റണ്ട് ചെയ്തിട്ട് വീണിരുന്നു പക്ഷെ വീണു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ബൈക്കിൽനിന്ന് വീണ് കഴിഞ്ഞിട്ട് എനിക്കൊരു പേടിയും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെയും സ്റ്റണ്ട് ചെയ്യാൻ നടന്നു പിന്നെ ഡ്രോയിങ്ങും അത്യാവശ്യം വരയ്ക്കും നല്ല ക്ലിയറോടെ വരയ്ക്കും ഡ്രോയിങ്ങൊക്കെ ഡ്രോയിങ്ങും കുറച്ച് പഠിച്ചിട്ടുണ്ട് കുറച്ചേറെ പഠിച്ചിട്ടുണ്ട്